ആ ഞാനൊരു ലൈസൻസിന് വേണ്ടിയിട്ടായിരുന്നു ലൈസൻസ് എനിക്ക് ടൂ ടൂവീലറിൻ്റെ ലൈസൻസും വേണം ഫോർവീലറും വേണം ടൂവും വേണം ഫോറും രണ്ടുംവേണം ഇല്ല ഇല്ല അതെ മ് അതെങ്ങനൊക്കെയാണ് അതിനു പരീക്ഷ പരീക്ഷ ഉണ്ടോ അല്ലേ ഇപ്പോൾ കൊടുത്താൽ ഒരുമാസം അപ്പോൾ നമ്മ എപ്പോൾ കിട്ടും നമുക്ക് ലൈസൻസ് ഞങ്ങൾക്ക് എപ്പോൾ കിട്ടും

മ് ഫീസ് ഫീസ് മ് എത്ര ക്ലാസ് ആ ഓ അത് നമ്മള് അവിടെ പോയിട്ട് അതിനു നമ്മളവിടെപ്പോയിട്ട് എഴുതിക്കൊടുക്കണ്ടേ നമ്മളവിടെ പോകണ്ടേ മ് മ് ആ എന്തൊക്കെയാണ് ഇത് ഈ പേപ്പറുകളും എല്ലാം രണ്ടായിരം രൂപയും കൂടി തന്നുകഴിഞ്ഞാൽ നമുക്ക് എന്താ പരീക്ഷ അല്ലെ പരീക്ഷയ്ക്ക് ഓ അപ്പോൾ ഞാനിതെല്ലാം കൂടി എടുത്തിട്ട് വരാം